നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സാങ്കേതിക വിദ്യ വയ് വളരെ അധികം നമ്മളുടെ ജീവിതത്തിൽ ആവശ്യകതയായിട്ട് വന്നിട്ടുണ്ട് അതായത് പണ്ടൊക്കെ മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ടൈമിനു നമ്മൾ ഒരു കല്യാണമോ പിന്നെ എന്തെങ്കിലും വിളിക്കുക അതായത് ഒരു പരിപാടിക്ക് ആൾക്കാരെ വിളിക്കണമെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ടാണ് നമ്മൾ വിളിച്ചോണ്ടോയത് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ മൊബൈൽ ഫോണുള്ള കാരണം ജസ്റ്റ് ഒരു കോളിങ്ങിലോ ജസ്റ്റ് മെസ്സേജ് വാട്സപ്പിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതു കഴിഞ്ഞ് അതാ ടൈമിംഗ് എത്ര ടൈമിംഗ് നമ്മൾ കുറക്കാൻ പറ്റി പണ്ടൊക്കെ ഒരു ദിവസം ഒരു പത്തു വീട് പതിനഞ്ചു വീട് പോയി പോയിട്ട് അവിടെ പറയണം ഇന്ന പരിപാടി വരണമെന്നൊക്കെ പറയണം ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഓൾറെഡി മൊബൈലിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക അതുകൂടാണ്ട് നമുക്ക് കുട്ടികളിൽ ഇപ്പോൾ നമുക്ക് സാങ്കേതിക വിദ്യ അതി മാറിയിട്ടുണ്ട് അതായത് ഇൻ്റർനെറ്റ് കാര്യങ്ങളും അവർക്കെന്ത് ഇപ്പം ഒരു ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ ജസ്റ്റ് ഒന്നു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇപ്പോൾ വീ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് വീട്ടുകാരോടോ ടീച്ചറോടൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടു തന്നെ കുട്ടികൾ ഇപ്പോൾ സ്വന്തം സ്വന്തം നിലയ്ക്ക് കണ്ടു പിടിക്കാനുള്ള ഇത് ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അതേപോലെ ആണെ നമ്മുടെ ജീ നമ്മുടെ ജീവിതത്തിൽ കൊ വളരെ അധികം മാറ്റം പത്തു വർഷത്തിനിപ്പുറം കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് പണ്ടെ പണ്ടത്തെ പോലെയല്ല പത്രങ്ങൾ പ കുറഞ്ഞു മുൻപൊക്കെ ആണെങ്കിൽ ഒരു ന്യൂസ് കിട്ടണെ ന്യൂസ് അറിയണമെങ്കിൽ നമുക്ക് പത്രത്തെയാണ് നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഞൊടിയിടയിൽ മൊബൈൽ ഫോൺ ഉണ്ടത് മൂലം നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗം മൂലം ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ നമുക്ക് ഇന്നത്തെ വാർത്തകളും കാര്യങ്ങളും അറിയുക അറിയുന്നുണ്ട് അതു മാത്രമല്ല നമുക്ക് ഇപ്പോൾ എന്തു ചെയ്താലും കാര്യങ്ങളിപ്പം എല്ലാം വീഡിയോ ആയിട്ടത് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതിപ്പോൾ പാട്ട് ഒരാൾ പാ നന്നായി പാട്ടു പാടുന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ പാട്ട് പാടുന്നുണ്ടെങ്കിൽ അതിപ്പോൾ വീഡിയോ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നാൽ അതു ഭയങ്കര അതിമു പ്രചാരം പ്രചാരം കിട്ടുന്നുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ പാടിയാൽ ആരും ആ ഹാളിലെ സദസ്സിലെ ആൾക്കാർ മാത്രം കേട്ടുകൊണ്ടും അതുപോലെതന്നെ അതിനെ അഭി അഭിനന്ദിച്ചുകൊണ്ടും ഇരിക്കുന്ന ടൈമൊക്കെ മാറി ഇപ്പോൾ ലോകം മുഴുവൻ അവൻ്റെ അതാ പാടിയ ആ ഗായകൻ്റെ കഴിവുകൾ കണ്ടെത്താനും അതിനെ ലൈക്കും ഷെയറും കൊണ്ട് അവർ കൂടുതൽ ഉന്നതിയിൽ എത്തിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതുപോലെ ടി വി ടി വി യിൽ ആണെങ്കിൽ ചില പ്രോഗ്രാമുകൾ അവരെ ഈ ഫെയ്മസായ അവരെ വിളിച്ചു വരുത്തി അത് അതിലൂടെ അവരെ ഫെയ് വൈറ വൈറലാക്കുക വൈറലാക്കുന്നുണ്ട് അതൊക്കെ ഒരു ഇപ്പൊരവധി വയ്ങ്കാത്ത കാര്യ മാറുന്നുണ്ട് സ ഇപ്പോൾ സാങ്കേതിക പുരോഗതി ഇപ്പോൾ വന്നാലും അദി ആദ്യം വന്നതു മൊബൈൽ മൊബൈലാണ് അതുപോലെ ഇപ്പോൾ റോഡ് നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ റോഡ് റോഡൊക്കെ വളരെ മോശമായിരുന്നു ഒന്നിപ്പോൾ കാസർകോഡ് ഒന്നു പൂവണമെങ്കിൽ കുറേ ടൈം നമുക്ക് വേണ്ടി വരും ഇപ്പോഴാണെങ്കിൽ റോഡ് ഭയങ്കര പുരോഗതി വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ശാസ്ത്രത്തിലായാലും പലതരത്തിലും എല്ലാത്തരത്തിലും സാങ്കേതിക സാങ്കേതിക വിദ്യ അമ്പെ മാറിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ കൊറോണ ടൈമിനാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പം രണ്ടു രണ്ടു മൂന്നാലു മാസത്തോളം കുട്ടികൾ സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല സ്കൂളുകൾ പൂവാൻ പറ്റിയിരുന്നില്ല അപ്പോഴൊക്കെ ഓൺലൈനെന്ന ക്ലാസ് ഓൺലൈൻ ക്ലാസ്സ് മുഖാന്തരമാണ് എല്ലാവർക്കും പഠിപ്പിച്ചു പഠിപ്പിച്ചുക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ ഒരു വിജയം തന്നെയാണ് പിന്നെയുള്ളത് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതിലൂടെ അറിയാൻ പറ്റുന്നുണ്ട് പരസ്പരം അവരുടെ സുഹൃത്ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ ഇപ്പോൾ ഇപ്പോൾ അന്യ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് കണ്ടു കൊണ്ടു സംസാരിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ നിലവിലുണ്ട് അതുപോലെ ഓൺലൈൻലായിട്ട് ഇപ്പോൾ കല്യാണം വരെ നടക്കുന്ന ഒരു സംവിധാ ആ സംഭവമാണ് ഇപ്പോളുള്ളത് പിന്നെ എല്ലാം ആ ഒരു ഓൺലൈൻ രുടെ പലതരം മാറിയിട്ടുണ്ട് ഇനിയും മാറും ഇനിയും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ത് ആയാലും അതു മാറുമെന്നത് ഉറപ്പുണ്ട് നമ്മളിപ്പോൾ ഒരു പത്തു വർഷത്തിനു മുൻപുള്ള കാര്യങ്ങളല്ല ഇപ്പോളുളളത് അതായത് ഇനി അങ്ങനൊന്നു പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വണ്ടിയാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ വണ്ടിയൊന്നും ആൾക്കാരിക്ക് ഉണ്ടായില്ല ആൾക്കാരപ്പോൾ ട്രെയിനിനെയും ബസ്സിനെയും മാത്രം ആശ്രയിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്കൊരു വണ്ടി എന്ന ബൈക്കായാലും കാറായാലും ഒന്ന് ഉണ്ട് അതായത് അതെല്ലാം സാങ്കേതിക വിദ്യയുടെ ഒരു മിക മികവ് തന്നെയാണ് അതൊക്കെ പിന്നെ ഉള്ളത് ജീവിതത്തിൽ നമുക്ക് ആയാസകരമാക്കിയത് നമുക്കിതു പോലെയുള്ള ഇൻ്റർനെറ്റ് ന്യൂസുകളും പിന്നെ ഫിലിമുകളും ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ സിനിമ നോക്കുകയാണങ്കിൽ ടാക്കീസിൽ ക്യൂ നിന്നു ടിക്കറ്റ് എടുത്ത് അതു ഫുള്ളായിക്കഴിഞ്ഞാൽ തിരിച്ചു വരണം അല്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും പോകണം ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടു നമുക്ക് അതുംകൊണ്ട് അവിടെ പോയിട്ട് നമക്കടേന്നു നോക്കണ്ട അവസ്ഥ അവസ്ഥ സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അതുമാത്രമല്ല പിന്നെയുള്ളത് നമ്മുടെ സിനിമക്ക് ഇപ്പോൾ ഓൺലൈൻ തന്നെ കാണാൻ പറ്റും അതായത് ഇപ്പോൾ ഇപ്പോൾ തീയേറ്ററിൽ കാണുന്ന സിനിമ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലൂടെ അതു ഡൗൺലോഡ് ചെയ്തു നോക്കാനും പറ്റും അതൊക്കെ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു പുരോഗതി തന്നെയാണ് ഉള്ളത് പിന്നെ ഉള്ളത് എന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിത തിരിയത്തിൽ ഫുഡ് ഫുഡാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് ഭക്ഷണം വീട്ടിൽ ഇപ്പോൾ ഇല്ലാ എന്നു വെച്ചാൽ തന്നെ നമുക്ക് ഓൺലൈനിലൂടെ ഓർഡർ ചെയ്താൽ നമുക്കതു വീട്ടിലേക്ക് എത്തും വീട്ടിലേക്കെത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ ഉണ്ട് അത് പലതരം ഇതാണ് ഹോട്ടലുകൾ ടൈയപ്പ് ചെയ്തു കൊണ്ട് ഡെലിവറി ഡെലിവറി പോയിൻ്റുകൾ ഇപ്പോൾ പലരും നടത്തുന്നുണ്ട് അതുപോലെതന്നെ നമുക്ക് വേണ്ട വീട്ടിലാവശ്യമായ സാധനങ്ങൾ അതായത് അരി മറ്റും സാധനങ്ങളും പിന്നെ ഡ്രസ്സ് പോലെയുള്ള സാധനങ്ങൾ മൊബൈൽ വീട്ടാവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതൊക്കെ നമുക്കിപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ഷോപ്പുകളിൽ പോകേണ്ട ആവശ്യമില്ല പകരം നമ്മൾ ജസ്റ്റ് ആമസോൺ ആയാലും ആമസോൺ ആയാലും പിന്നെ ഫ്ലിപ്പ്കാർട്ടായാലും അങ്ങനെ അനേകം ഓൺലൈൻ സൈറ്റിലൂടെ ഓർഡർ ചെയ്തു വിത്തിൻ രൻ ടു ടു ഡേ അല്ലെങ്കിൽ രണ്ടു മൂന്നു ദിവസത്തിനുള്ളിൽ അത് എത്തുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ കാണപ്പെ ടുന്നുണ്ട് അതൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ വിജയം തന്നെയാണ് അത് അതു കൂടാണ്ട് നമ്മുടെ ടി വി ടി വിയിലൂടെ പണ്ടൊക്കെ ടി വിയൊന്നും ഒരു വീട്ടിലും ഒരു വീട്ടിലുണ്ടായാൽ എല്ല അപ്പുറത്തുള്ള എല്ലാ വീട്ടുകാരും വന്ന് അവിടെ നോക്കുന്നൊരു സ്ഥിതി കാര്യ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതു മാറി ടി വി തന്നെ ഒഴിവാ ഒഴിവാകുന്ന ഒരു കാര്യമാണുള്ളത് എല്ലാവർക്കും മൊബൈലിലൂടെ കാണാൻ പറ്റും അത് ലൈവുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ നാളെ തന്നെ റിപ്പീറ്റായി കാണാനുള്ള ഓപ്ഷൻ പോലും ഇപ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ പുരോഗതി ഉള്ളത് ഇപ്പോൾ ഫൈബർ എയർ ഫൈബർ എയർ ക എയർ ഫൈബർ പോലെയുള്ള കാര്യങ്ങളും പിന്നെ ഡി ടി എച്ച് പോലെയുള്ള കാര്യങ്ങളും എല്ലാം ഇൻ്റർനെറ്റ് യുഗമായിട്ട് ഇതു മാറുന്നുണ്ട് ഇൻ്റർനെറ്റ് യുഗമെന്നു പറഞ്ഞാൽ നമുക്കത് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു ദിവസം പോലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് ഇൻ്റർനെറ്റാണിപ്പോൾ ലോകം ഭരിക്കുന്നത് ലോകം എന്തു കാര്യയാലും ഇപ്പോൾ കോൺഫെറൻസ് കാര്യങ്ങളായാലും എന്തു കാര്യങ്ങളായാലും എല്ലാം ഓൺലൈനിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മൊബൈൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ എല്ലാം പണ്ടൊക്കെ മൊബൈലുകളെല്ലാം സ്കൂളുകളിൽ നമുക്കൊരു പത്താം ക്ലാ പന്ത്രണ്ടാം പ്ലസ് ടു കഴിഞ്ഞാൽ മാത്രമെ മൊബൈലുകൾ കിട്ടിയിരുന്ന കാലത്ത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സ് മുതലെ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ അവർക്ക് യൂട്യൂബ് ഗൂഗി ഗൂഗിൾ ഗൂഗിൾ അതൊക്കെ ഓപ്പണാക്കാൻ പറ്റും അതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതു പോലും മനസ്സിലാക്കാൻ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കു നന്നായിട്ട് അറിയാൻ പറ്റും പണ്ടത്തെ കാലത്തൊക്കെ മൊബൈലൊക്കെ കിട്ട് കയ്യിൽ കിട്ടണമെങ്കിൽ ഒരു പന്ത്രണ്ട് അതായത് പ്ലസ് ടു കഴിഞ്ഞാൽ മാത്രമെ അതും കീ പേഡ് ഫോണുകൾ അതിൽ ക്യാമറയോ മറ്റ് ഇൻ്റർനെറ്റ് കാര്യങ്ങളോ ഇല്ല ഒൺലി കോളുകൾ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഒരു മിനി കമ്പ്യൂട്ടർ മാത്രമായിട്ട് ഇപ്പോൾ മാറുന്നുണ്ട് മൊബൈൽ ഒരു മിനി കമ്പ്യൂട്ടറായിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ചെറിയ സ്ലിം ഫോണുകളും കയ്യിൽ നമുക്ക് ഒതുങ്ങാവുന്ന മൊബൈലുകൾ എന്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ലോകത്തിലെന്തു നടക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കൺമുന്നിൽ കാണാൻ പറ്റുന്ന ഒരു വലിയ ഒരു സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ രസകര മാ ആക്കുന്നുണ്ട് കൂടുതൽ സാങ്കേതിക വിദ്യ വളരട്ടെ നമ്മുടെ ജീവിതം നിലവാരവും മാറട്ടെ